ഗുഡ് മോര്ണിംഗ് അതേ ടോപ് ഫോം റെസ്റ്റോറൻറ്റ് തന്നെ ആണ് ആരാ സംസാരിക്കുന്നത്

താമരശ്ശേരി ആണ് ല്ലേ ആ യെസ് ആ എന്ത് ഫുഡ് വേണ്ടത് ആ നെയ്ചോറും ബീഫു ഉണ്ട് നെയ്ചോറും ചിക്കന് ഇണ്ട് എത്ര ആള്ക്കുള്ള ഫുഡാണ് മൂന്നു പേര് ല്ലെ ആ മൂന്നു പേര്ക്ക് ആകുമ്പോൾ ഒരു മുന്നൂറിന്റെ അടുത്തെന്തെങ്കിലു ആവുട്ടോ രണ്ടും കൂടിട്ട് ഡെലിവറി ചാര്ജ് എവിടെയാണ് നിങ്ങളെ വീട് എവിടെയാന്നാ പറഞ്ഞത് ടൌണിന് അടുത്തൊന്നും അല്ലെ ആ അപ്പോൾ ഡെലിവറി ചാര്ജ് ഒന്നും വേണ്ട ഞങ്ങൾ ഇവിടെ പിന്ന രാമനാട്ടുകരയാണ് ആ വലിയ ഡിഫ്റൻറ്റ് ഒന്നു ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഡെലിവറി ചാര്ജ് ഒന്നും വേണ്ട ടോട്ടല് ഇപ്പോൾ മുന്നൂറ് അതിലും അല്ലെങ്കിൽ ചിലപ്പോൾ മുന്നൂറ്റിപത്ത് അങ്ങനെ എന്തെ ചെറിയോരു പൈസ വരുള്ളൂ ട്ടാ ആ പിന്നെ ഇവിടെ കൂടുതലായിട്ട് അവൈലബിള് ആയിട്ട് വേറെയും സാധനങ്ങൾ ഉണ്ട് ബിരിയാണി ആണെങ്കിൽ തന്നെ മന്തി അല്ഫാം ചിക്കന് പീസ് അങ്ങനെന്തെലുഒക്കെ വേണോ ആണോ ആ മീന് എപ്പോഴേക്കാ വേണ്ടത് ആണോ ഇപ്പപ്പോൾ നാല് അര ആയി അപ്പോൾ പിന്നെ നാല് അര നോക്കാം നമുക്ക് എത്താന് പറ്റോന്ന് നോക്കാം കേട്ടോ ആ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടില്ലേ നിങ്ങളെ ആ ഈ നമ്പറിലേക്ക് വിളിക്കാം താമരശ്ശേരി എത്തീട്ട് വിളിച്ചാൽ മതില്ലേ

ആ മേഡത്തിനു വേറെന്തെങ്കിലും ഐറ്റംസ് വേണോ ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ബീഫ് വേറെ കറിയുണ്ട് പിന്നെ വരട്ടിയത് അങ്ങനെയൊക്കെ ഉണ്ട് ഐറ്റംസ് ഓക്കേ നെയ്ച്ചോറും ബീഫുല്ലെ മൂന്നുപേര്ക്കുള്ളതല്ലേ ഓക്കേ മേഡം ഈ നമ്പറില് വിളിക്ക്യാട്ടൊ എത്തീട്ട് ഓക്കേ ഓക്കേ താങ്ക് യൂ